ഇപ്പോൾ എനിക്ക് എഴുതാനുള്ളതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു നാടിനെ കുറിച്ചൊക്കെ എഴുതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാരണം നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് നാടിനെ കുറിച്ച് ഒക്കെ എഴുതാൻ അറിയാമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നാട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഒരു സമൂഹത്തെ പറ്റിയൊക്കെ എഴുതുന്ന് അപ്പോൾ സമൂഹത്തിലുള്ള ആൾക്കാരെ കുറിച്ച് മതത്തെ പറ്റി ഇനിയിപ്പോൾ മതമൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള മതങ്ങളൊക്കെയുണ്ട് നമുക്ക് മൂന്നു തരം മതങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതില് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുമതമാണ് കൂടുതലായിട്ട് ഉള്ളത് ഇപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അതായത് അമ്പലങ്ങളിലേക്ക് പോകുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെ ഒരു ആചാരവും കാര്യങ്ങളുമൊക്കെയാണ് ഹിന്ദുമതത്തിൽ പല രീതിയിലുള്ള ആചാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒന്നാണ് ഹിന്ദുമതം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഹിന്ദുമതത്തിലാണ് കൂടുതലായിട്ടും ആചാരങ്ങളൊക്കെ ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ പറയാനുള്ളത് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ മതക്കാരും ഒരുപോലെ കാണുന്ന ആൾക്കാരായിരിക്കണം എല്ലാവരും കാരണമെന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പലരീതിയിലുള്ള മതക്കാരാണ് ഉള്ളത് അപ്പോൾ അവർക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മള് കാരണം ഇപ്പോൾ എല്ലാ മതക്കാരെയും ഒരേ പോലെ കാണണം എല്ലാവരുടെ ശരീരത്തില് ഓടുന്ന രക്തവും ചുവന്ന കളറാണ് അപ്പോൾ അത് ഒരു ജാതി ഒരു മതം മനുഷ്യനെന്നുള്ള ഒരു തത്വം നമുക്ക് കയ്യിൽ പിടിച്ച് നമുക്ക് കൊണ്ടുനടക്കണം അങ്ങനെയാണ് എനിക്ക് സമൂഹത്തോട് എനിക്ക് പറയാനുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്